ഹലോ അതെ ആരാണ് വിളിക്കുന്നത് ആരാണ് സംസാരിക്കുന്നത് അഹ് അതെ

എന്നായിരുന്നു അത് റേഷൻ കാർഡിൻ്റെ ആ ആ റേഷൻ കാർഡിൻ്റെ കോപ്പി ഒരു ഫോട്ടോ പിന്നെ തിരിച്ചറിയൽ കാർഡ് പിന്നേ ആ അതൊക്കെ അതത്രയും മതി അത്രയും മതി ആ മുപ്പത് രൂപ ആ പിന്നെ നിങ്ങൾ ചിലപ്പോൾ ആണോ എന്തോ വരുമ്പോൾ ഒത്തിരി താമസിക്കും കേട്ടോ ചിലപ്പം താമസമൊക്കെ ഉണ്ടാവും ആൾ ഇഷ്ടംപോലെ ആയിരിക്കും നിങ്ങൾ അതനുസരിച്ച് നേരത്തെ ഇറങ്ങിക്കൊളളണം രാവിലെ രാവിലെ ഒമ്പതു മണി ആവുമ്പോഴത്തേക്കും വരികയാണെന്നുണ്ടങ്കിൽ വലിയ ആളില്ല അല്ലെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് വരണം എന്നാലെ ഉള്ളു ആൾ കുറവ് ആ പെട്ടെന്നു ശരി ആക്കി തരണമെന്നോ പെട്ടെന്ന് ശരിയാക്കി തരാം നിങ്ങൾ വന്നാൽ മതി മൂന്നു പേരുണ്ടോ മൂന്നു പേര് ആ മുപ്പത് രൂപ വീതം കൊണ്ടുവരണം കേട്ടോ ആ എല്ലാവരുടേയും ആധാർ കാർഡും ഇതും എല്ലാംകൂടി കൊണ്ടുവരണം വേണ്ട വേണ്ട അക്ഷയ സെൻ്ററ് കുരിശുംമൂട് അറിയാമോ കുരിശുംമൂട് നിങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നല്ലേ വരുന്നത് അഹ് കുരിശുംമൂട് ആ ചെത്തിപ്പടി ആശുപത്രിയുടെ അവിടോട്ട് അങ്ങോട്ട് തിരിയത്തില്ലേ ആ അതിൻ്റെ അവിടെ ആ ആ ചെത്തിപ്പടി ആ വളവു തിരിയുന്നതിൻ്റെ അവിടെ എങ്ങാണ്ടാണേ അക്ഷയ സെൻ്ററ്